ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ള ഒരു സംഭവമാണ് ഹാ ഹാ ഹലുവ കാര്യങ്ങൾ അത് കോഴിക്കോടൻ ഹൽവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും തന്നെ ഫേമസ് ആണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു സാധനമാണ് എല്ലാവർക്കും സ്വീറ്റ് കാര്യങ്ങൾ ഒക്കെ കൂടുതലായിട്ട് ഇഷ്ടമുള്ള എല്ലാ ആൾക്കാരും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു സാധനമായിരിക്കും ഈ മി ഹലുവ എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് കോഴിക്കോടൻ ഹലുവയ്ക്കാണ് എല്ലാ സ് നാടുകളിലും നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരുന്നൊരു സ്വീറ്റും അതാണ് അതുപോലെത്തന്നെ ഫിഷ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പം കക്കയം കക്കയ കക്ക ഇറച്ചി കാര്യങ്ങൾ അതുപോലെ ഉള്ള എല്ലാ ഫിഷ് ഐറ്റംസും കാര്യങ്ങളാണെങ്കിലും എല്ലാം ഡിമാൻഡ് ആണ് പിന്നെ അതുപോലെ തന്നെ കോഴിക്കോടൻ ബിരിയാണികൾ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ എല്ലായിടത്തും ഫേമസ് ആണ് ഇപ്പോൾ കോഴിക്കോടിൻ്റെ ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ ഫുഡ്ഡിന് അത്രയും പ്രധാനം കൊടുക്കുന്ന ഒരു നാടു കൂടിയാണ് ഞങ്ങളുടെ നാട് അപ്പം ഈ ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ടു മാത്രമായിട്ട് എല്ലാവർക്കും അത്രയേറെ ഒരു ഫേമസ്സും കാര്യങ്ങളും എവിടെ പറഞ്ഞാലും കോഴിക്കോടൻ ഫുഡ് എന്ന് പറയുമ്പോൾ അതിനു ഭയങ്കര ഡിമാൻഡും കാര്യങ്ങളുമാണ് ബിരിയാണി ആണെങ്കിലും അതുപോലെ സ്വീറ്റ്സ് ഐറ്റംസും കാര്യങ്ങളാണെങ്കിലും ഫിഷ്ഷിലാണെങ്കിലും എന്തിനാണെങ്കിൽ തന്നെയും അതിനൊക്കെ വളരെയധികം ഡിമാൻഡും കാര്യങ്ങളും എല്ലായിടത്തേക്കാളും കൂടുതലായിട്ട് വരുന്ന ഒരു ഇതും കൂടിയാണ് പിന്നെ കോഴിക്കോടിൻ്റെ ഏതു മൂലയ്ക്ക് പോയാലും നമുക്ക് ഓരോരോ ബീഫ് ബിരിയാണി സ്റ്റാളുകളും അവിടുത്തെ ഫേമസ് ആയ ഫുഡ്ഡുകളും കാര്യങ്ങളും കൊണ്ട് ഫേമസ് ആയിരിക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ടാകും